എന്റെ അഭിപ്രായത്തില് അധ്യാപകർ സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ അ വളരെ അനവധിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു വിദ്യാർത്ഥിക്ക് വിദ്യ അഭ്യസിച്ച് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് സ്കൂളിൽ നിന്ന് അതെന്ന് പറയുന്നത് ബേസിക് ആയിട്ട് വിദ്യാര്ത്ഥി കാര്യങ്ങൾ പഠിച്ചു വളരുന്ന ഒരു സ്ഥലമാണ് അവിടെ ഒരു അവിടെ വിദ്യ അഭ്യസിച്ച് കൊടുക്കുമ്പോൾ ഒരു സ്കൂൾ കുട്ടിക്ക് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ ഒട്ടനവധിയാണ് ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയുവാണെങ്കിൽ ഈ വിദ്യാർത്ഥിക്ക് ഭാവി പഠനത്തിന് ഉപകാരമുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിപ്പിച്ച് കൊടുക്കണം അവിടെ ഭാവി പഠനത്തിന് അവര്ക്ക് അതിന്റെ ബെയ്സ് മനസ്സിലാക്കാന് അവര് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പോകുവാന് ആഗ്രഹിക്കുന്ന ഭാവി പഠനത്തിന് അവർ എടുക്കുന്ന കരിയര് ഓപ്ഷന് അതിനു വേണ്ടിയിട്ടുള്ള ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ച് കൊടുക്കണം പോരാത്തത് പിന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരുവാൻ വേണ്ടി അവർക്ക് വേ അത്യാവശ്യമായി വരുന്ന ജീവിത അഭ്യാസങ്ങളും നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ച് കൊടുക്കണം സ്കൂളിൽ പല ജീവിത അഭ്യാസ കാര്യങ്ങളും നമ്മൾ പഠിപ്പിച്ച് കൊടുക്കുന്നില്ല പ്രത്യേകിച്ച് നമുക്ക് ടാക്സ് എങ്ങനെയാണ് അടയ്ക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ പൗരത്വ നമ്മുടെ പൗരത്വ അവകാശങ്ങൾ എന്തൊക്കെയാണ് ഇതൊന്നും നമുക്ക് അങ്ങനെ പഠിപ്പിച്ച് തരുന്നില്ല കൂടിപ്പോയാൽ നമ്മൾ അതിനു വേണ്ടി വക്കീല് ഉദ്യോഗമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിനാൻസിന്റെ ഏതെങ്കിലും പഠനശ്രയം എടുക്കുകയാണെങ്കിൽ മാത്രമേ അതും കോളേജിൽ ഒക്കെ എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ആവശ്യം മനസ്സിലാവുകയുള്ളൂ അല്ലെങ്കി അതിനെ കുറിച്ച് നമ്മള് അറിയുന്നുള്ളൂ പിന്നെ ബാങ്കിൽ എങ്ങനെയാണ് ഒരു ഫോം എഴുതേണ്ടത് ഇതൊന്നും നമ്മൾ പഠിക്കുന്നില്ല അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഇനിയും സ്കൂളിൽ ഇപ്പോള് ഇല്ലാത്ത കാര്യങ്ങൾ പലതും നമ്മള് ഇനിയും പഠിക്കാൻ ഇരിക്കുന്നു